ഹലോ ആരാ വിളിക്കുന്നത് അതെ ആ ഓക്കേ എന്താണ് കാര്യം മ്മ് ആ എന്നാത്തിനാണ് എവിടെ പോകുവ

ഉം നോക്കട്ടേ എന്നാൽ പോകണ്ടേ ആ നോക്കട്ടെ ആലോചിക്കാം ക്ളാസ് ടീച്ചറിനോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമേ ആ സിസ്റ്ററിനോട് ചോദിക്ക് സിസ്റ്റർമാരോടും ക്ളാസ് ടീച്ചറിനോടും ഒക്കെ ചോദിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് ഞാന് ടീച്ചറിനോട് ആലോചിച്ചിട്ട് പറയാമേ വേണ്ട കാണുവൊന്നും വേണ്ട ആ ടീച്ചറിനോട് അല്ല ക്ലാസ് ടീച്ചറിനോട് ചോദിക്കണം ആ ഒരു ലെറ്ററ് തന്നേക്കണേ എവിടെയാണ് പോകണെമെന്ന് അറിയണ്ടേ പരീക്ഷയൊക്കെയാണ് അതുകൊണ്ട് അവധി തരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒരു ലെറ്ററ് തന്നേക്കണം മ്മ് ഓക്കേ ആ ഓക്കേ ഓക്കേ മ്മ് മ്മ് മ്മ് ആ അറിയാം അറിയാം മ്മ് ആ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ടൂറൊക്കെ പോയിട്ട് വരുമ്പം പരീക്ഷയാണ് അത് കഴിഞ്ഞ് നന്നായിട്ട് പഠിച്ചോണ്ട് വരാൻ പറയണം ആ

മ്മ് ശരി മ്മ് പഠിക്കാൻ പറയണം വീട്ടിൽ നിന്ന് പഠിക്കാൻ പറയണം ആ ടൂറിനൊക്കെ പോയിട്ട് വരുമ്പം ഉഴപ്പരുത് പറയണം മ്മ് ആ മ്മ് ആ ശരി ശരി ഓക്കേ ഓക്കേ